ഞാൻ ചെയ്യുന്നത് തുന്നലാണ് എൻ്റെ ഹോബി അതിൽ ചുരിദാർ സാരി ബ്ലൗസുമാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത് അതിൽ സ്ഥിരമായിട്ട് തയ്ക്കാനെനിക്ക് കഴിയാറില്ല ഞാൻ ഒരു ഷോപ്പിൽ പോകുന്നതിനാൽ നിത്യേന ഇരുന്ന് തയ്ക്കാൻ പറ്റില്ലയെങ്കിലും അത്യാവശ്യം ഞാനെനിക്ക് വേണ്ടിയെടുക്കുന്ന ഡ്രസ്സുകൾ ഷേയ്പ്പ് ചെയ്യാനും വല്ലപ്പോഴും ചുരിദാർ ബ്ലൗസ് തയ്ക്കുവാനും വേണ്ടി ഞാൻ മിഷീൻ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ എനിക്ക് നിത്യേന ഇത് ഉപയോഗിക്കുകയോ ഓയിലിടുകയോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് പ്രശ്നങ്ങൾ നേരിടാറുണ്ട് കൂടുതലായും പ്രശ്നം വരുന്നത് കാണി ഉണ്ടാവുകയും കാണി ശരിയാകാതെ വന്ന് നൂൽ പൊട്ടിപ്പോവുന്നതാണ് ഒരു പ്രധാന പ്രശ്നം ചുരിദാർ വെട്ടി തയ്ക്കാൻവേണ്ടി തുടങ്ങുമ്പോൾ ഈ കാണിപിടിക്കാതെ വരുമ്പം നൂൽ ശരിയാകാതെ വന്നാൽ അത് കാണിപിടിക്കാതെ വരും കാണിപിടിക്കാതെ വന്നാൽ തയ്യൽ ശരിയായ രീതിയിൽ നടത്താനായിട്ട് നമുക്ക് കഴിയുകയില്ല അപ്പോൾ അതാണെനിക്ക് പ്രധാനമായിട്ടും എൻ്റെ മിഷ്യൻ്റെ പ്രശ്നംകൊണ്ട് തയ്യൽ മിഷ്യൻ്റെ പ്രശ്നംകൊണ്ട് സംഭവിക്കുന്നത് അല്ലായെങ്കിൽ കൃത്യമായിട്ടെനിക്ക് തയ്ച്ച് നല്ല സ്പീഡിലെടുക്കാൻ ഞാൻ കഴിയുന്നുണ്ട് സാധാരണ മിഷ്യനാണ് ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് മോട്ടറുപയോഗിച്ചുള്ള മിഷ്യനെ ഉപയോഗിക്കുന്നതിനോട് വലിയ താൽപ്പര്യമില്ല കൂടുതൽ കാരണം നമ്മൾ പ്രത്യേക മോഡലിലൊക്ക തയ്ച്ച് വരുമ്പോൾ ഫാഷനിലൊക്ക തയ്ച്ച് വരുമ്പോൾ സ്പീഡ് കൂടിപ്പോയാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുളവാക്കും അതുകൊണ്ട് സാധാരണ മിഷ്യൻ വെച്ച് ചെയ്യുന്നതിനോടാണ് എനിക്ക് താൽപ്പര്യം